എൻറ്റേതായി ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ മറ്റുള്ളവർക്ക് ഞാൻ കൊടുക്കാറുണ്ട് അതേപോലെ ലൈക് ഇപ്പം പിന്നെ യുട്യൂബി നോക്കിയുള്ള കാരണം ഞാനങ്ങനെ പറഞ്ഞ് കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഞാനുണ്ടാക്കിയൊരു ഭക്ഷണം തന്നെ ആണെങ്കിലും വീട്ടിലുള്ളവർക്ക് കൊടുക്കും അവർ ചോദിക്കും എങ്ങനെ ഉണ്ടാക്കിയെന്ന് അപ്പം ഞാൻ ജസ്റ്റവർക്ക് പറഞ്ഞ് കൊടുക്കും ഇനി കൂടുതൽ കാര്യങ്ങളുണ്ടെങ്കിൽ യുട്യൂബിൽ നോക്കാൻ പറയും അങ്ങനെയാണ് പിന്നെ പല പാചകവിധികളും എനിക്ക് എൻ്റെ കൂട്ടുകാരും പ്രായ അമ്മച്ചിമാർ അമ്മാവന്മാരൊക്കെ എനിക്ക് പറഞ്ഞ് തരാറുണ്ട് അപ്പം അത് വഴിയേ പല നുറുക്ക് വഴികളക്കെ വഴിയെ ഇപ്പം ഞങ്ങൾ പല കാര്യങ്ങളുണ്ടാക്കീട്ടുണ്ട് എനിക്ക് ഇപ്പോഴും പാചകം എന്ന് പറയുന്നത് എൻറ്റൊരു എൻറ്റൊരു ഹോബിയാണെനിക്ക് നേരം കിട്ടുമ്പോഴൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അങ്ങനൊരു ബോറിങ്ങായിട്ട് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ലിങ്ങനെ പെട്ടന്ന് പെട്ടന്ന് വിഷമകരമാണെങ്കിലും ഞാൻ പെട്ടന്ന് പാചകം ചെയ്യും അപ്പം പകുതി കാര്യങ്ങളൊക്കെ എനിക്കെന്തോ ചെയ്ത് കഴിഞ്ഞെന്നൊരു തോന്നലാണ് അപ്പോൾ വളരെ ഒരു സന്തോഷാണെനിക്കെപ്പഴും ഈ കുക്കിങ്ങ് ചെയ്യുമ്പോൾ കുക്കിങ്ങ് എനിക്കെപ്പോഴും ഇഷ്ടമാണ് എപ്പോഴും ഞാൻ ഇങ്ങനെ അങ്ങനെ ഡെസേർട്ട്ണ്ടാക്കും ബിരിയാണിണ്ടാക്കും അങ്ങനെ പല കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് എനിക്ക് വളരെ താൽപ്പര്യം ഉള്ളൊരു കാര്യമാണ് അതേപോലെ തന്നെ വീട്ടിലമ്മയെ സഹായിക്കുന്നും ഒരു പരിധിയിൽ കുക്കിങ്ങ് എന്ന് നമുക്ക് പറയാം അമ്മമാർ പിന്നെ എന്നും ചെയ്യണത് കാര്യമാണ് കുക്കിങ്ങ് നമ്മളതെടക്ക് ചെയ്യുന്നൂന്ന്ള്ളൂ അതു നമ്മുടെ ഹോബിയായ കാരണം നമ്മളത് ചെയ്യുന്നു ചിലർക്ക് ലൈക് കുക്കിങ്ങ് അതൊരു ഹോബിയൊന്നുമല്ല അതെല്ലാവരും പഠിച്ചിരിക്കണ്ട ഒരു സ്കില്ല് തന്നെയാണത് ഒരു ബേസിക്കായിട്ടുള്ള ഒരു നീടും കൂടിയാണ് കുക്കിങ്ങെന്ന് പറയുന്നത് പാചകം എന്ന് പറയുന്നത് അത് നമ്മൾ എന്തായാലും ചെ ചെയ്ത് പഠിക്കണം അല്ലെങ്കിൽ അതുകൊണ്ടൊരു കാര്യം ഇല്ലന്നാണ് പറയുന്നത് അപ്പമതുകൊണ്ടന്നെ നമുക്കെത്രത്തോളം നമുക്ക് നമ്മുടെ കഴിവുകൾ കൂക്കിങ്ങ് നടത്താൻ പോവും നമ്മുക്കത്രത്തോളം ഇതാക്കും പിന്നൊരാൾ പഠിപ്പിച്ച് തരുന്നതല്ല കുക്കിങ്ങ് നമ്മൾ തന്നെ നമ്മുടെ തെറ്റുകളിലൂടെയാണ് നമ്മൾ ശരിയിലേക്കെത്തുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം കുക്കിങ്ങ് ചെയ്ത് പഠിക്കുന്നു അത്രത്തോളം നമ്മൾ കുക്കിങ്ങിൽ അത്രത്തോളം പ്രഫഷണൽസ് നമ്മളത്രത്തോളം സ്കിൽ ഡെവലപ്പ്ഡാ അതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നമ്മൾ ചെയ്യാം അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഇന്ന കാര്യങ്ങൾ ചെയ്യണ്ടിരിക്കാനൊന്നും പറ്റുന്നില്ല നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യാം ആ വളരെ നല്ലതാണ്